ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കേരളത്തിൽ കേരളത്തിൽ ഇടുക്കിയിലാണ് ഇവിടെ ഇപ്പോൾ പൊതുവെ ആളുകളൊക്കെ ഫോണിൻ്റെ ഉപയോഗം കൂടുതലാണല്ലോ അപ്പോൾ പൊതുവേ എല്ലാവരും പുറത്ത് വീടിനു പുറത്തുപോയി ജോലി ചെയ്യാതെ വീട്ടിലിരുന്നുതന്നെ ജോലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിത്തുടങ്ങി പുതിയ തലമുറയിൽ ഉള്ളവർ അല്ലാതെയുള്ള കർഷകരൊക്കെ പൊതുവെ പണ്ട് ഉള്ള ശീലം തന്നെ മുന്നോട്ടു കൊണ്ടുപോവുന്നു പുതിയ ആളുകൾ യൂത്തായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ എന്നും ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോയെന്ന് നോക്കുന്നുണ്ട് അത് ഇത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴും പോസ്റ്റ് ഇടുമ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാം നമുക്ക് പൈസ തരുന്നുണ്ട് അതൊരു വരുമാനമായിട്ട് എടുക്കുന്നവരും ഉണ്ട് ഇങ്ങനെയെക്കെ ഉള്ള സംഭവങ്ങളാണ് പൊതുവേ ഇപ്പോൾ നടക്കുന്നത് അതുപോലെതന്നെ യൂട്യൂബ് യൂട്യൂബിലും വീഡിയോസും ഒക്കെ ഇടുന്നവർക്ക് യൂട്യൂബ് വരുമാനം നൽകുന്നുണ്ട് അപ്പോൾ ആൾക്കാരെ കൂടുതൽ അതിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഈ വീട്ടിൽ നിന്നുമാറി ഉള്ള കഠിനമായിട്ടുള്ള ജോലികളൊക്കെ ഒഴിവാക്കാനും ഇത് സഹായിക്കും

വരുമാനം എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ എന്നാലും ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ചിലർ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും അല്ലാത്തവർ പുറത്തുപോയി ജോലി ചെയ്യുന്നവരും എന്നു വെച്ചാൽ ഓഫീസിൽ ഒക്കെ പോയി ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് പിന്നെ പൊതുവേ ഇപ്പോൾ രാഷ്ട്രീയം ആർക്കും പിന്നെ പുതിയ തലമുറ ഇങ്ങനെ രാഷ്ട്രീയം നോക്കാറില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരൂ പ്രസക്തിയൊക്കെ കുറഞ്ഞു വരികയാണ് സമൂഹത്തിൽ പിന്നെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാനായി ഒന്നുമില്ലെന്ന് തോന്നുന്നു